ഹലോ ആരാണ് സംസാരിക്കുന്നത് ആ എസ് നാച്ചുറല് ഹോസ്പ്പിറ്റലാണ് ആയുര്വേദിക് ഹോസ്പ്പിറ്റലാണ് ഹലോ ആ ഓക്കെ മേഡം പറഞ്ഞോളു മേഡം ആ ഓക്കെ

ഓക്കെ അപ്പോൾ മേഡം ഇവിടെ ഇവിടെ തി ഫുള് ബോഡി മസാജൊണ്ട് മസാജിന് പിന്നെ നമ്മളിപ്പം മുപ്പത് ദിവസം ചെയ്യാമെങ്കിൽ അത്രയും നല്ലതാണ് ഇല്ലെങ്കിൽ രണ്ടാഴ്ച്ച ചെയ്യാമെങ്കിൽ ഓക്കെ ബെറ്ററായിട്ട് ഇവിടുന്ന് ഉണ്ട് മേഡം പക്ഷേ നമ്മൾ കൂടുതൽ ദിവസം എടുത്ത് ചെയ്യുവാണേൽ അത്രേം എഫെക്റ്റ് കിട്ടുവായിരുന്നു ഓക്കെ മേഡം കുഴപ്പമില്ല മേഡം നമ്മുടെ കയ്യിലുണ്ട് മേഡം വണ് വൺ ണ്ടേ പാക്കേജൊണ്ട് ആ വൺ ണ്ടേ പാക്കേജിൽ ബോഡി മാസാജൊണ്ട് പിന്നെ അതുകഴിഞ്ഞ് സ്റ്റീം ബാത്തൊണ്ട് അത് പിന്നെ ഫേഷ്യലൊണ്ട് അങ്ങനെ മേഡത്തിനതു വേണേൽ ചൂസ് ചെയ്യാം ഫേഷ്യല്ന്ന് പറഞ്ഞാൽ മാഡം എല്ലാം ഫുള്ള് ആയുര്വേദവാണ് ആയുര്വേദ മെഡിസിനാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത് ഏതാ ആ കിഴിയക്കെ ഉണ്ട് മേഡം ഉണ്ട് മേഡം ഉണ്ട് ഇതിന് പേ മേഡം ഇപ്പോൾ ലേഡി ആയോണ്ട് പ്രത്യേകം ലേഡീസാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ അങ്ങനാണ് ചെയ്ത കൊടുക്കുന്നത് മേഡത്തിനിവിടെ വിശ്വസിച്ച് വരാം പിന്നെ നമ്മുടേതായിട്ടുള്ള ഫുഡ് ആയുര്വേദ കഞ്ഞി പയര് അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് മേളം മേഡം കുട്ടികളെങ്കൊണ്ടൊക്കെ വരുവാന്നെങ്കിൽ നമുക്കതിന് പ്രത്യേക സൗകര്യങ്ങളക്കെയുണ്ട് പക്ഷേ മേഡം ഇത് റിലാക്സ്സെ ചെയ്ത് ചെയ്യേണ്ട കാര്യവാണ് ഇടക്ക് കുഞ്ഞുങ്ങളെ നോക്കാനക്കെ പോവാന്നങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കുവത് മേഡത്തിന് കാരണം ഒരു ദിവസമെന്നു പറഞ്ഞാൽ മ മേഡം ഒരു ദിവസമേ തെരഞ്ഞെടുത്തിട്ടുള്ളു അപ്പോൾ ആ ദിവസം മേഡത്തിന് ഫുള് റിലാക്സ് കിട്ടണം പിന്നേ തലയിലായാൽ ധാരയുണ്ട് ആഹ്

മേഡം വൺ ണ്ടേയാ മേഡം എടുക്കുന്നെങ്കിൽ മൂവായിരം രൂപയെ ഉള്ളു ഇപ്പോൾ ഒരുമാസവൊക്കെ ആന്നെങ്കിൽ ആ ഒരു മാസം ഒക്കെയാന്ന് പതിനഞ്ചൊക്കെ വരും മേഡം

ആ അത്രയേ വരത്തുള്ളൂ ഒരു ടെന് തൗസന് ആ ഓക്കെ മേഡം നമുക്കഡ്ജസ്റ്റ് ചെയ്യാം മേഡം ഇല്ലില് ഇല് ഇല്ല മേഡം മേഡത്തിന്റെ സൗകര്യമനുസരിച്ച് ഒരു ദെ മേഡത്തിന്റെ സൗകര്യമനുസരിച്ച് ഒരു ദിവസം നല്ല റിലാക്സ്സായിട്ട് ഒരു ദിവസം വരുക നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാം ആ ഓക്കെ മേഡം ബുക്ക് ചെയ്യാം മേഡം പറഞ്ഞോളു മേഡത്തിന്റെ പേര് പ്രവീണ ഓക്കെ സ്ഥലം ഏതാണ്

ഓക്കെ മേഡം ഓക്കെ മേഡം ഓക്കേ മേഡം ഓക്കേ ഓക്കെ മേഡം മേഡം വരാനുദ്ധേശിക്കുന്നതിന്റെ തലേന്ന് ഞങ്ങളൊന്നുങ്കുടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കുവെ മേഡത്തിനെ ഓക്കെ ബൈ